ഒരു ഹെഡ് ഫോൺ വാങ്ങാൻ വേണ്ടി നമ്മളിപ്പം ആമസോണിലോ അല്ലെങ്കിൽ ഇതിൽ ഫ്ലിപ്പ്കാർട്ടിലോ നോക്കിയാൽ മതിയല്ലോ അതിലാകുമ്പം കൂടുതൽ ഓപ്ഷൻസ് കിട്ടും അതിൽ ബൈ ചെയ്തിട്ട് നമ്മൾ ആഡ് കാർട്ട് കൊടുക്കണം ഫ്ലിപ്പ് കാർട്ടിലാണെങ്കിൽ ഇതു നമ്മൾ ബൈ ചെയ്തിട്ട് ആഡ് കാർട്ട് കൊടുത്താൽ മതിയല്ലോ അന്നേരം നമുക്കത് കിട്ടുമല്ലോ ഫോൺ വഴി പേയ്മെൻറ്റ് നടത്തണോ അതോ അക്കൗണ്ട് വഴി തന്നെ വന്നോളുമല്ലോ നമ്മൾ പിന്നെ വരുമ്പം ക്യാഷ് കൊടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയൊന്നും വേണ്ടല്ലോ എന്നാൽ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ ചെയ്യാം